പിന്നെ ആദ്യം എടുത്തപ്പോൾ ക്യാമറ യെമ്മാ ക്ലാരിറ്റി ആയിരുന്നു ഇപ്പോൾ അഞ്ച് പൈസയ്ക്ക് കൊള്ളില്ല ആദ്യം എടുക്കുമ്പോഴൊക്കെ നല്ല അടിപൊളി ക്യാമറ ആയിരുന്നു എല്ലാത്തിൻ്റേയും പിന്നെ പിന്നെ പിന്നെ പിന്നെ ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ക്യാമറയുടെ ക്വാളിറ്റി അങ്ങ് മാറി മാറി മാറി അങ്ങ് വരും ഒരു ക്വാളിറ്റി ഇല്ലാതെ ആവും പിന്നെ എല്ലാത്തിനും നല്ല റേഡിയേഷൻ ആണ് എല്ലാത്തിനും നല്ല റേഡിയേഷൻ ആണ് എല്ലാ പിള്ളേരുടെ കൈയിൽ ഉണ്ട് ചെറിയ പിള്ളാരുടെ കൈയിൽ വരെ ഇപ്പം മൊബൈം ആണ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് ആണെങ്കിൽ ഭയങ്കര ഹീറ്റാവൽ ഇപ്പം വിവോ അങ്ങനത്തെ സാധനങ്ങളാണ് ഇതൊക്കെ എംഐൻ്റെ ഇതൊക്കെ ഭയങ്കര ഹീറ്റാവൽ ഇഇതൊക്കെയാണ് ഭയങ്കര ഇത് പൊട്ടും എന്നല്ല നല്ല ഇതാവും പൊട്ടിത്തെറിക്കുന്നു ബാറ്ററി നിൽക്കണില്ല ഇപ്പോൾ ക്യാമറ ഓരോ ഓരോ അപ്ഡേറ്റ് വരും അപ്ഡേറ്റ് വരുന്നതിൻ്റെ അന്ന് അപ്ഡേറ്റ് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ വര വരലായി പിന്നെ ബാറ്ററി പോയി എന്തൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആയി അത് അവന്മാർ ചെയ്യുന്ന പരിപാടിയാണ് പുതിയ പുതിയ ഫോണ് വാങ്ങാൻ വേണ്ടിയിട്ട് മൊബൈല് ഇപ്പോൾ രണ്ട് കൊല്ലം യൂസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അടുത്തത് വാങ്ങാൻ വേണ്ടിയിട്ട് അവന്മാരെ പണിയാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുന്നത്